എനിക്ക് ഇന്ത്യയില് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ യാത്ര ചെയ്തതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തമിഴ്നാടിലെ ധനുഷ്ക്കോടി രാമേശ്വരം സ്ഥലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാനവിടെ ഫാമിലിയായിട്ട് ഞാന് ചെറുപ്പത്തില് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ തന്നെ നമുക്കാ ഒരു സ്ഥലത്തിലോട്ടു പോകുന്ന സമയത്ത് ഒരു പുതിയൊരു ഫീൽ അറ്റ്മോസ്ഫിയർ അവിടത്തെ അന്തരീക്ഷം നമ്മളെ ശരിക്കും ഒന്ന് നമ്മളെ എന്താ പറയുക വേറൊരു ലോകത്തോട്ട് എത്തിക്കുന്ന രീതിയിലാണ് അപ്പോൾ എനിക്കവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ധനുഷ്കോടിയിലായിക്കോട്ടെ ഞാൻ പോകുന്ന സമയത്തവിടെ വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഒരു വേനൽക്കാല സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് എന്തോ കുട്ടിക്കാലത്തു പോയതുകൊണ്ട് അതെപ്പോഴും മനസില് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് ഉള്ളത് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാടിഷ്ടമാണ് ഇപ്പോൾ യാത്ര ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോകണം എന്നു ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഗോവയിലായിക്കോട്ടെ രാജസ്ഥാൻ ബാംഗ്ലൂര് അതുപോലെത്തന്നെ എനിക്കവിടെയൊക്കെ പോവാൻ യാത്ര ചെയ്യാനെനിക്കൊരുപാടിഷ്ടാണ് പുതിയ കാഴ്ചകളാണ് ഓരോ സ്ഥലങ്ങളും പല രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മള് ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോളും ഓരോ അനുഭവമാണ് നമുക്ക് ലഭിക്കുക